ആ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് വാഷിംഗ് മെഷീനാണ് കേട്ടോ അപ്പം പണ്ടൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേന് എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോവുമ്പോഴത്തേനും മക്കളക്കെ വിടാന് കയ്യിൽ കഴുകി അത് ഉണങ്ങാനും ബുദ്ധിമുട്ട് അങ്ങനെ ഇതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന് അപ്പം പെട്ടന്ന് അങ്ങനെ തോന്നി പിന്നെ എവിടേങ്കിലും യാത്രയൊക്കെ പോവുമ്പോഴത്തേന് അത് ഉണങ്ങി കിട്ടാൻ പിന്നെ മഴ സമയത്ത് അങ്ങനെക്കെ ആയിരുന്നു ബുദ്ധിമുട്ട് അപ്പം ഇപ്പോൾ എനിക്ക് ആ വാഷിംഗ് മെഷീന് ഒരു കിട്ടിയപ്പോഴത്തേന് എനിക്ക് വളരെ ഉപകാരം ആയി എന്ന് വെച്ചാൽ മഴ സമയത്താണ് കൂടുതലും അത് പ്രയോജനപ്പെടുന്നത് കാരണോന്ന് വെച്ചാൽ മഴ മഴ ഉള്ള സമയത്ത് ഉണങ്ങി കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് പിന്നെ അതിനകത്ത് നമ്മൾ ഇപ്പോൾ കയ്യിൽ അത്യാവശ്യമുള്ള തുണികൾ കഴുകിയാണ് തന്നെ അതിനകത്തിട്ട് ഉണക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം വാഷിംഗ് മെഷീന് എനിക്ക് നല്ലൊരുപകാരവായിട്ടാണ് എനിക്ക് തോന്നി വാഷിംഗ് മെഷീന് ഉപകാരപ്രദമായിട്ടുള്ള ഒരിതായിട്ടാണ് എനിക്ക് തോന്നിയത്